പ്രാദേശിക ഭാഷയും മലയാളവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നാലും എല്ലാ ജില്ലക്കാരും കേരളത്തിലെ എല്ലാ ജില്ലക്കാരും വ്യത്യസ്തതരം ശൈലിയിലാണ് സംസാരിക്കുന്നത് മാതൃഭാഷ എന്നാരും ഇന്ന് മലയാളത്തിൽ തന്നെയാണ് കേരളത്തിലെ എല്ലാവരും സംസാരിക്കുന്നത് എഴുതുന്ന ശൈലിയും പറയുന്ന ശൈലിയും വ്യത്യസ്തമാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള ജില്ല വരെ വ്യത്യസ്ത്തതരം ശൈലിയിലാണ് ആൾക്കാർ അവിടെ തമ്മിൽ സംസാരിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് സ്പുടമായ മലയാളം സംസാരിക്കുന്നത് ചിലവർ പഴയ മലയാളം സംസാരിക്കും ചിലവർ പ്രാദേശിക ഭാഷ സംസാരിക്കും ചിലവർ സ്പുടമായ മലയാളം സംസാരിക്കും അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളു മലയാളം എന്തായാലും ഭാ കേരത്തിലെ ഭാഷയെല്ലാം ഒന്നു തന്നെയാണ് അപ്പോൾ മലയാളവും പ്രാദേശിക ഭാഷയും മലയാളവും ഒന്നുതന്നെയാണ്